കേരളത്തിൽ വിനോദസഞ്ചാരികൾക്ക് സന്ദർശിക്കാൻ പറ്റിയ ആത്മീയ കേന്ദ്രങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ആത്മീയകേന്ദ്രങ്ങൾ വിശ്രമകേന്ദ്രങ്ങൾ ഒക്കെ ഉണ്ടോന്നു ചോദിച്ചാൽ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഏതൊരു അമ്പലം എടുത്തു നോക്കിയാലും ഏതൊരു ഒരു എന്താ പറയ്യാ അമ്പലമോ പള്ളിയോ മസ്ജിദോ ഏതെങ്കിലും എടുത്തു നോക്കിയാൽ തന്നെ ഏറ്റവും സമാധാനമായിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇതൊക്കെ ഒരു നമ്മളുടെ തൃശ്ശൂരിൽ തന്നെ എടുത്തു നോക്കിയാൽ വടക്കുംനാഥൻ്റെ അമ്പലം പറയുന്നത് അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ അവിടെ ജാതി മതം ഭേദമന്യെ ആൾക്കാർ കയറാറുണ്ട് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ പോയി പ്രാർത്ഥിക്കണം ഒരു മതപരമായ കാര്യമല്ല പക്ഷെ ഈ മൻ മനസിന് കിട്ടുന്ന ഒരു സമാധാനം എന്നുള്ളൊരു ഘടകം തന്നെയാണ് ഏറ്റവും വലുത് അതിനകത്ത് കയറിയാൽ ഏതൊരു മതത്തിൽപ്പെട്ടൊരാൾക്കും ആ ഒരു ഒരു ആത്മീയത ആ ഒരു സമാധാനം ഉള്ളിലേക്ക് തീർച്ചയായും കയറുന്നതാണ് ഏറ്റവും സമാധാനമുള്ള ഒരു വായു അന്തരീക്ഷമാണ് അതിനു ചുറ്റിനും മരങ്ങളും വൃക്ഷങ്ങളും ചെടികളും പൂക്കളും ഒക്കെ കണ്ണിനു കുളിർമയേറുന്ന ഒരുപാട് ഒരുപാട് നല്ല കാഴ്ചകളാണവിടെ പശുക്കളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഓരോ പ്രാണികളും ശബ്ദമുണ്ടാക്കുന്ന പക്ഷികളുവൊക്കെ നിറഞ്ഞ ഒരു സ്ഥലം എന്നു പറയുന്നത് ഏറ്റവും വിനോദസഞ്ചാരികൾക്കു വന്നാൽ തന്നെ ഏറ്റവും കാഴ്ച കാണാനും സമാധാനമായി ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു വിശ്രമ കേന്ദ്രം തന്നെയാണ് ഓരോ അമ്പലോം അതിൻ്റെ ചുറ്റുപാടും ഇപ്പോൾ പ്രാർത്ഥിക്കണമെന്നു ആഗ്രഹമുള്ളവർക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അങ്ങനെ ഒരു അത്യാവശ്യമായ കാര്യങ്ങളൊന്നുമല്ല എന്തൊക്കെ നമുക്ക് അവിടെ ഇരുന്ന് പാട്ടുപാടാനോ അവിടെ ഇരുന്ന് പുസ്തകം വായിക്കാനോ വരയ്ക്കാനോ ഏതായാലും അവിടെ ഒരു ഒരു തടസോം ഇല്ലാതെ നമുക്കവിടെ ഇരിക്കാം അതുപോലെത്തനെ ആത്മീയകേന്ദ്രങ്ങളെന്ന് പറയുന്നത് ഈ ശബരിമല അതുപോലെ തന്നെ ഏതൊരമ്പലം നമ്മളുടെ ചുറ്റിനടുത് അമ്പലവോ പള്ളിയോ ക്രിസ്ത്യൻ പള്ളികളിൽ ചെന്നുകയറിയാൽ തന്നെ അവിടെ ഉണ്ടാകുന്നൊരു ഒരു നിശബ്ദതാന്നു പറയുന്നത് ഏറ്റവും വലുതാണ് അതു അതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നിലവിലുണ്ട്